ഹലോ നമസ്കാരം ആ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ആ അപ്പോൾ കേരളം ഈ വെക്കേഷനിൽ കേരളം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉം അപ്പോൾ പിന്നെ കേരളത്തെപ്പറ്റിയിട്ട് ആ അച്ഛൻ മലയാളിയാണ് ആ തമിഴ് നാട്ടില് ആ അച്ഛൻ പാലക്കാട് അതെ ഞാന് ഇതുവരെ പാലക്കാട് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങള് ഈ വെക്കേഷൻ പാലക്കാടേക്ക് വരാനാണ് പ്ലാൻ ചെയ്തത് ഇപ്പം അച്ഛൻ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല അപ്പോൾ ഞങ്ങള് ഒ ഒറ്റയ്ക്കാണ് വരുന്നത് അപ്പോൾ പാലക്കാട് പറ്റിയിട്ട് ഒരുപാട് പൂരം വേല എല്ലാ ഉള്ള ജില്ല ആണല്ലോ

ഉം ആ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നെല്ലിക്കുളങ്ങര വേല നെന്മാറ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടൊന്നുവില്ല ആ ആ അതെ അത് ഞാൻ കേ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം എന്തായാലും വെക്കേഷനു വരുവാണല്ലോ അപ്പോൾ അത് എപ്പഴാണ് എന്നൊക്കെ അറിഞ്ഞാൽ അതിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓ ആന ഒക്കെ ഉണ്ടാവില്ലേ ആന ഉണ്ടാവില്ലേ ആ

ആഹാ ഏത് അമ്പലത്തിലാണ് ഉണ്ടാകാറ് ആ ആ അതെ അതെ

ആ ഓ അത്രയും ഫേയ്മസാ ആ ഞാനിങ്ങനെ ഫോട്ടോസും ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു വേലക്കൊന്നും പോയിട്ടില്ല ഇത്തവണ എന്തായാലും വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ ആ ആ അത് ഒറ്റപ്പാലം അല്ലെ ആ ആ തൃശ്ശൂർ പൂരം ആ കേട്ടിട്ടുണ്ട് ആ അതെ അല്ലെ ഓ അഹാ അതേ ഓക്കെ അപ്പം ആ ആ ആ കേട്ടിട്ടുണ്ട് ഇയ്യ അപ്പം ഇത്തവണ എന്തായാലും വരുമ്പോൾ ഓക്കേ അപ്പോൾ ഇയാൾ നമ്പറൊന്ന് തരുവോ ഞാന് ആ സമയത്ത് വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ഓക്ക് ആ ഓക്കെ ഉം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അന്ന് കാണാം ഓക്കെ ശരി